പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി നാല് ഏഴ് പതിനൊന്ന് രണ്ടായിരം നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടേ പയിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല്